നിങ്ങളുടെ ഉപജീവനമാർഗ്ഗം വൈദ്യുതിയെ ആശ്രയിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വൈദ്യുതിയെ ആശ്രയിച്ച് തന്നെയാണ് ഉപജീവനമാർഗ്ഗം നടക്കുന്നത് കാരണം കാരണം എൻ്റെ ഭർത്താവ് ഒരു വെൽഡർ ആണ് വെൽഡിങ് ജോലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈദ്യുതി വൈദ്യുതി ഉപയോഗിച്ച് മാത്രമേ വെൽഡിങ് മെഷീനും അതിനോട് അനുബന്ധിച്ച സാഹചര്യങ്ങൾ അതിനോട് അനുബന്ധിച്ചുള്ള ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടി വരുന്നത് വൈദ്യുതി കൊണ്ടാണ് അപ്പോൾ വൈദ്യുതി അല്ലെൽ കറണ്ട് ഇല്ലാതെ ആയാല് അവർക്ക് അവരെ ജോലി മുടങ്ങും ജോലി ചെയ്യാൻ സാധിക്കില്ല അത് ദിവസത്തോളം ആണെങ്കിൽ അല്ലേൽ ദിവസത്തിൽ എത്ര മണിക്കൂർ എത്ര സമയം മുതൽ എത്ര സമയം വരെ ജോലി ചെയ്യുന്ന സമയത്ത് ആ കൃത്യമായ സമയത്ത് അവരുടെ ജോലി തീർത്തു കൊടുക്കാനായിട്ടോ എന്നാ ജോലിയില് ആ ഒരു സമയത്ത് തീർത്തു കൊടുക്കാൻ അവരുടെ ആ ഏറ്റ ജോലി പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാതെ അടുത്ത ഒരു ജോലിയിലേക്കോ അടുത്ത ഒരാളുടെ ഒരു ജോലിയിലെക്കോ അടുത്ത ഒരു ജോലി ഏൽക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ആ വൈദ്യുതി ഇല്ലാത്തത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഈ ഒരു ജോലിയില് ഇപ്പം അത് മാത്രവൊന്നുമല്ല ഈ ഒരു മേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖല ഉണ്ടുണ്ട് പിന്നെ വൈദ്യുതിയെ ആശ്രയിച്ച് ഉപജീവനമാർഗ്ഗം നടത്തുന്നവര് ഇപ്പം നിസാരമായ ഒരു പാചകം ആണെങ്കിൽ പോലും എന്നാ നമുക്ക് ഇപ്പം ഹോട്ടലുകളും മറ്റു കാര്യങ്ങളും ഉപജീവന മാർഗമായി നോക്കുന്ന ആൾക്കാര് എന്നാ അവർക്ക് വൈദ്യുതി കൊണ്ട് മാത്രമേ എന്നാ പൊടിക്കാനും അരക്കാനും അത് പോലുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുകയുള്ളൂന്നു ഹോട്ടൽ മേഖലകളിലൊക്കെ കൂടുതല് ഒരുപാട് ഉണ്ടാക്കേണ്ടി വരുന്ന സാഹചര്യത്തില് അവർക്ക് വലിയ മെഷീനുകള് ഗ്രൈൻഡർ പോലുള്ള മഷീനുകൾ ഒക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോളത്തേക്കിനും വൈദ്യുതി ഇല്ലെന്നുണ്ടെങ്കില് ആ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ വൈദ്യുതി മുടങ്ങുന്ന ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് പിന്നെ ഈ മുടങ്ങുന്ന സമയത്ത് മറ്റു വെളിച്ചത്തിനുള്ള സംവിധാനങ്ങളും നമുക്ക് സാധാരണ ജീവിതത്തിലാണെങ്കിൽ മറ്റ് വെളിച്ചത്തിനുള്ള സംവിധാനം നമുക്ക് ഉപയോഗിക്കാം കാരണം വീട്ടിൽ ആണെങ്കിൽ സന്ധ്യ സമയങ്ങളിലൊക്കെ അല്ലേൽ നമ്മുടെ നാട്ടില് മഴ കൂടുതലുള്ള സമയങ്ങളില് കാറ്റ് മറ്റ് പ്രശ്നമുള്ള അപ്പോൾത്തേക്കിന് വൈദ്യുതി മുടങ്ങി പോകുന്ന അവസരം ഉണ്ടാകാറുണ്ട് മരങ്ങൾ മറഞ്ഞ് വീഴുകയൊ അതുപോലെ എന്തേലും സാഹചര്യങ്ങള് മഴ വൈദ്യുതി മുടങ്ങി പോകാറുണ്ട് അപ്പോൾ നമുക്ക് എന്നാ വിളക്ക് കത്തിച്ചു വെച്ച് മണ്ണെണ്ണ വിളക്കുകള് ഉപയോഗിക്കയും അല്ലേല് മുൻകൂട്ടി എന്നാ ചാർജ് ചെയ്തു വൈദ്യുതി ചാർജ് ചെയ്തു വെച്ചിട്ടുള്ള എമർജൻസിയോ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാം അല്ലേല് മെഴുകുതിരി കത്തിച്ചുവച്ച് ഉപയോഗിക്കാം പിന്നെ ഇപ്പോൾ ഇപ്പം ഇന്നത്തെ യുഗത്തില് കൂടുതലായിട്ട് എല്ലാവരും ഇൻവർട്ടറുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് കാര്യം അതായത് ഇപ്പം ഇപ്പോളത്തെ കാലാവസ്ഥ അതായത് ചൂട് ഒരുപാട് ഏത് സമയം ഒരുപാട് ചൂട് കൂടുതലുള്ള സമയമാണ് അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് മുൻകൂട്ടി ഒര് ഇൻവെർട്ടർ കണക്ട് ചെയ്താല് മുൻകൂറായിട്ട് വൈദ്യുതി സേവ് ചെയ്തു വച്ചു കൊണ്ട് വൈദ്യുതി പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ പ്രവർത്തിപ്പിച്ച് നമുക്ക് ഫാനും ലൈറ്റും പോലുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും പിന്നെ സോളാർ പാനലുകള് വൈദ്യുതി മുടങ്ങുന്ന സമയത്ത് സോളാർ പാനലുകൾ ഉപയോഗിച്ച് നമ്മുടെ വൈദ്യുതിയുടെ ഉപയോഗം കറണ്ട് ബില്ല് സേവ് ചെയ്യാനായിട്ട് കറണ്ട് ബില്ല് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്നാ അപ്പം ഇപ്പോൾ മണ്ണെണ്ണ അങ്ങനെ കിട്ടാനില്ല എങ്കിൽ പോലും മണ്ണെണ്ണ വിളക്കുകൾ ഇപ്പോൾ പൊതുവേ ഉപയോഗിക്കാറില്ല മണ്ണെണ്ണ വിളക്കുകളൊക്കെ പണ്ടൊക്കെ ഉപയോഗിച്ച് കൊണ്ടിരുന്ന സിസ്റ്റം ആണ് മണ്ണെണ്ണ വിളക്കുകള് ഇപ്പം മണ്ണെണ്ണ വിളക്കുകൾ അങ്ങനെയില്ല എങ്കിലും മെഴുകുതിരിയും ഇൻവെർട്ടറുകളും ഇപ്പം ഇൻവെർട്ടറുകള് വന്നതോടുകൂടി നമുക്ക് എമർജൻസിയുടെ ഉപയോഗം അങ്ങനെയില്ല എന്ന് തന്നെ പറയാം പിന്നെ ഫ്ലൂറിസെൻ ബൾബുകള് നമുക്ക് വൈദ്യുതിയുടെ ഉപയോഗം കുറച്ച് ഉപയോഗിക്കാനുള്ളത് സാധിക്കും ഫ്ലൂറസൻ ബൾബുകള് ഇൻവർട്ടറുകൾ കണക്ട് ചെയ്താൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ആ ഇൻവെർട്ടർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല അപ്പം ഫ്ലൂറസെൻ്റ് ബൾബുകൾ പോലുള്ളത് പിന്നെ ഇലക്ട്രിക് ഫാനുകള് ഇലക്ട്രിക് ഫാനുകള് റിമോട്ട് വെച്ച് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലുള്ള ഫാനുകള് ഇന്നിപ്പോൾ ഉണ്ട് നേരിട്ട് വൈദ്യുതിയിൽ പ്രവർത്തിക്കാത്ത അപ്പം നമുക്ക് കുറഞ്ഞുള്ള വൈദ്യുതി ഉപയോഗിക്കാൻ ആയിട്ട് അതിൽ അത് ഉപയോഗിക്കുന്ന വഴി വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും